അപ്പോൾ നമ്മള് ഗെയിമിങ്ങിൻ്റെ ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാവി നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പണ്ട് മുതലേ ഇള്ളത് പക്ഷേ നമുക്കത് പൂർണമായിട്ടും നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒന്നാണ് ഗെയിമിങ്ങ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഗെയിമിങ്ങാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയില് ചിലപ്പം മുന്നിട്ട് വരുന്നൊരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ടുള്ളത് കാരണം എല്ലാ കുട്ടികളടുത്തും ഫോണ് ഇപ്പം ചെറിയ കുട്ടികളുടെ അടുത്ത് വരെ ഫോണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് അതിലേക്ക് മുഴുകിയിരിക്കുന്ന ഒരാവസ്ഥയായിരിക്കും ഇനിയങ്ങോട്ടുള്ള കാലഘട്ടങ്ങളില് പുറമേയുള്ള കളികളൊക്കെ അവരൊഴിവാക്കി മൊബൈലിലൂടെയുള്ള കളികൾ മാത്രമാണ് അവര് യൂസ് ചെയ്യുന്നത് അതിൽനിന്നൊക്കെ വ്യത്യാസം വരണമെങ്കില് പിള്ളേർക്ക് മൊബൈല് മേടിച്ചു കൊടുക്കാണ്ടിരിക്കുക ഇതാണ് മെയിനായിട്ട് നമ്മള് ചെയ്യേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ അത് നമുക്കെന്തായാലും ഒരു വ്യക്തിക്കും അങ്ങനെ സാധിക്കില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോണാണ് അവര് ഉപയോഗിക്കുന്നതും ഫോണാണ് അപ്പോൾ അതിൽ നിന്നും നമുക്കൊരിക്കലും വിട്ട് മാറാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഇനിയങ്ങോട്ടുള്ള കാലഘട്ടങ്ങളില് മൊബൈൽ ഫോണിലൂടെയുള്ള ഗെയിമിങ്ങായിരിക്കും കൂടുതലായിട്ടും ഉള്ളത് പബ്ജി ഫ്രീഫയറ് അങ്ങനെയുള്ള ഗെയിമുകളാണ് കൂടുതലായിട്ടും ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം